ആ ഓക്കെ ആ ചെയ്യാലോ ഓക്കെ ഇവിടിപ്പോൾ ഇപ്പം നിങ്ങളെവിടാണ് സ്ഥലം സ്ഥലം എവിടാണ് പ്രോപ്പറ്

തി തിരു ആ കോട്ടയം ആ പത്തനംതിട്ട ജില്ലയെന്ന് പറയുമ്പോൾ പിന്നെ തിരുവല്ലയൊക്കെ അതിനകത്ത് പെടുവല്ലോ പിന്നെ കോട്ടയം കോട്ടയത്തുണ്ട് പിന്നെ നമ്മുടെ അ തിരുവനന്തപുരം എളുപ്പം സൗ ആ

അതിപ്പം

ആ പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതലും എനിക്ക് പെട്ടന്ന് കാണിക്കാൻ പറ്റുന്നത് മറ്റേത് കുറച്ചൊക്കെ കോട്ടയം കുറച്ചൂടെ ഇതല്ലേ ഇപ്പം ഈ ഇവിടാവുമ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടാവുമ്പം കൂടുതൽ കുറച്ച് വൈഡ് ആയിട്ട് കാണിക്കാനും പരിചയപ്പെടുത്താനൊക്കെ സാധിക്കും

ശരിയാക്കി തരും

ആ ഓക്കെ എല്ലാം ശരിയാക്കി തരാം നിങ്ങളെന്നാണ് വരുന്നതെന്നും കൂടെ ഒന്ന്

ആ നേരത്തെ പറയണേ എന്നാലേ നമുക്ക് എല്ലാം ഇത് ശരിയാക്കാൻ പറ്റത്തൊളളൂ നിങ്ങൾ വരുന്നതിന് ഡേയ്റ്റ് നേരത്തെ പറയാങ്കിലേ ഓക്കെ